എനിക്ക് കൂടുതലായിട്ട് സന്ദർശിക്കാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പഴയൊരു ആൾക്കാരാണല്ലോ അപ്പം ഞങ്ങൾക്ക് കൂടുതലായിട്ടും സന്ദർശിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളൊക്കെ ആണ് കൂടുതലായിട്ടും സന്ദർശിക്കാൻ ഇഷ്ടം ഞാൻ കൂടുതലായിട്ടും സന്ദർശിക്കണം ആഗ്രഹിക്കപ്പെട്ടതും അങ്ങനെ ഉള്ള സ്ഥലങ്ങളാണ് നമ്മുടെ അതായത് ഇപ്പം പലതരം കാപ്പി ചെടികൾ കുരുമുളക് ചെടി വാഴ വാഴ വിത്തുകൾ ഇപ്പം പെട്ടെന്ന് മുളക്കുന്ന വിത്തുകൾ തെങ്ങുംതൈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നതാണ് കൂടുതലായിട്ടും ഞാനീ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണ് കൂടുതലായിട്ടും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം